ഹലോ ഞാൻ പിന്നെ ഒരു ക്യാബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം എനിക്കിപ്പം ഇത്രയും സമയമായിട്ട് നിങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ അഡ്വാൻസ് നല്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകുവാനായിരുന്നു ഇപ്പോൾ പെട്ടന്നൊരു അത്യാവശ്യം വന്നപ്പോൾ വേഗം ഓർഡറ് ചെയ്യാണ് ഇത്രയും നേരമായിട്ട് നിങ്ങൾ വന്നില്ല അഡ്വാൻസ് തരികയും ചെയ്തു അപ്പോൾ ഇപ്പം എനിക്കതെ ക്യാബ് വേണ്ടയെന്ന് ഞാൻ വയ്ക്കുകയാണ് റദ്ദാക്കുകയാണ് അഡ്വാൻസ് തിരികെ തിരികെ തരണം അപ്പം അഡ്വാൻസ് തന്നുവെന്ന് വച്ചിട്ട് അതിപ്പം തരില്ലെന്ന് പറയാനൊന്നും പറ്റില്ല അത് ഞാനെനിക്ക് ആ പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് വേഗമൊന്നു അഡ്വാൻസ് തന്നു അതെനിക്ക് തിരിച്ച് തരാനാണ് അയച്ചുതരൂ കേട്ടോ ഗൂഗിൾ പേയിൽ